ഹലോ സാർ ഞാൻ ഒരു ഊബർ ബുക്ക് ചെയ്തിരുന്നു പക്ഷെ എൻ്റെ ചില പ്രശ്നങ്ങളാൽ ഞാൻ അത് ഒഴിവാക്കുകയാണ് ഈ ആപ്പ്ളിക്കേഷനിൽ നിന്നും ഞാൻ അത് ഒഴിവാക്കി എനിക്ക് എൻ്റെ അഡ്വാൻസ് തുക തിരിച്ച് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുമാത്രമല്ല എനിക്ക് അറിയാം ഞാൻ നിങ്ങളുടെ വിലയേറിയ സമയമാണ് നഷ്ടപ്പെടുത്തിയത് അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഇവിടെ നിന്ന് കുറച്ച് അകലെ ഉള്ള ഒരു കമ്പനിയിലാണ് എനിക്ക് ജോലിക്ക് പോകേണ്ടത് എന്ന് വിചാരിച്ചു ഞാൻ ഈ സ്ഥലത്ത് പുതിയതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധം മാത്രമാണ് അതിന് ഇനിയും ഒരുപാട് സമയമുണ്ട് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ കറക്റ്റായിട്ടുള്ള ഡിറ്റെയ്ൽ നോക്കിയില്ലായിരുന്നു നോക്കാത്തതു കൊണ്ട് തന്നെ ആ ഒരു അബദ്ധം സംഭവിക്കുകയും ചെയ്തത് ഇനിയും എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരുപാട് സമയം കിടപ്പുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധത്തിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ സമയമാണ് ഞാൻ നഷ്ടപ്പെടുത്തിയതെന്ന് എനിക്ക് അറിയാം ഞാൻ നിങ്ങളോട് അതിനു വേണ്ടി മാപ്പ് ചോദിക്കുന്നു